അതെ എന്തായിരുന്നു ആരായിരുന്നു ഉജ്വലോ ആ വന്നായിരുന്നു ആ വന്നായിരുന്നു ഓ എന്തായിരുന്നു സാറേ ഇതെവിടെ നിന്നായിരുന്നു ഒന്നുകൂടെയൊന്ന് പറയാമോ അതോ സാറേ അത് ബസ്സിൻ്റെ സമയമൊക്കെ അറിയേണ്ടിയിരുന്നു പിന്നെ എനിക്ക് ഇതും വേണമായിരുന്നു ഈ ബസ് ടിക്കറ്റ് മറ്റേ ഇത് കിട്ടില്ലേ കണ്ടംനേഷൻ മ്മ് മ്മ് എനിക്ക് കെ എസ് ആര് ടി സിക്ക് ഈ കാർഡ് കൊടുക്കില്ലേ കണ്ടംനേഷന് എസ് ടി കെ കുട്ടിക്കാനത്ത് നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് അല്ല സാറേ അത് എനിക്ക് ഇത് വേണമായിരുന്നു എസ് ടി കൂടി വേണമായിരുന്നു എസ് ടി ഒരു ഒരു കാർഡ് പോലെ കിട്ടില്ലേ കാണിക്കുമ്പോള് നമുക്ക് കുറയ്ക്കുന്നത് ഒരു കാർഡ് എങ്ങാനുമില്ലേ സാറേ നമുക്ക് ബസിൽ പൈസ കൊടുക്കുന്നത് കാർഡ് കാണിച്ചാലും മതിയെന്ന് ആ അതെ അതെ അത് കിട്ടുമോ സാറേ സാറേ ഇതൊക്കെ പഠിച്ചിട്ട് സാർ ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടെ കസേരയില് കയറിയിരിക്കാൻ എന്തോ സാറേ സാര് മാന്യമായിട്ട് പെരുമാറിക്കോളൂ സ്റ്റാഫിനോട് മാന്യമായിട്ട് പെരുമാറണം ദേഷ്യം ചൂടാകല്ലേ സാർ ദേഷ്യം ഏ ഞാന് സാറെന്നാണ് വിളിക്കുന്നത് സാര് ചുമ്മാ ചൂടാകാതെ സാറേ ഞാൻ ചൂടായതല്ല ഞാൻ കാര്യം ചോദിച്ചതാണ് എനിക്ക് റൈറ്റുണ്ട് അതിനുള്ള സാർ ഒരു ഓഫീസറാണ് അതും അതും ഗവൺമെൻറ്റ് സ്റ്റാഫാണ് ഗവൺമെൻറ്റ് സ്റ്റാഫിന് ഒരു ക്ലൈൻറ്റിനോട് ചൂടാകാനുള്ള അവകാശമില്ല ആ ചൂടാകുന്നവര് കേസ് കൊടുത്ത് താങ്കൾ അകത്താകും ഞാന് എനിക്ക് സേഫാണ് എനിക്കെതിരെ കേസ് കൊടുത്താൽ എനിക്ക് ഒന്നും പറ്റാനും പോകുന്നില്ല കാരണം ഞാന് ഇതുവരെ സാറിനെ സാറെന്ന് തന്നെയാണ് വിളിച്ചത് വോയിസ് റെക്കോർഡാണ് സാര് വിട്ടോളൂ അപ്പോള് ഞാന് ചോദിച്ച കാര്യം എന്തായി കിട്ടുമോ ആ നോക്കിയിട്ട് വിളിച്ചാല് മതി സാറേ അപ്പോള് ഓക്കെ ആ ഓക്കെ സാറേ കുഴപ്പമില്ല ആദ്യത്തേതല്ലേ നമുക്ക് ക്ഷമിച്ചുവിടാം ഞാൻ വെയ്ക്കുകയാണ് സാറേ വീട്ടില് നിന്നൊരു ഓക്കെ വീട്ടില് നിന്നൊരു ഫോൺ കോളുണ്ട് ഞാന് വെയ്ക്കുകയാണ് സാര് സൗകര്യം പോലെ വിളിച്ചു പറഞ്ഞാല് മതി അല്ലെങ്കില് മെസ്സേജ് അയച്ചാലും മതി ഓക്കെ സാറെ ബായ് താങ്ക് യൂ